പ്രധാനമായും പറയാനുള്ളത് ഈ മ്യൂസിയത്തിനൊക്കെ നമ്മള ജീവിതത്തിൽ വളരെ വിലയുണ്ട് അവിടെ പോയിട്ട് കാണുമ്പോൾ നമുക്ക് എന്താണെന്നല്ലാത്ത അനുഭവമാണ് ഉണ്ടാവുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടി പിന്നെ ചരിത്രപരമായിട്ടും ഭാവിപരമായിട്ടും നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി സാധിക്കുന്ന അതിനു വേണ്ടി പ്രകോപിപ്പിക്കുന്ന ഒന്നാണ് മ്യൂസിയം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് അതിനകത്ത് നമുക്ക് പറയാനുള്ളത് എടുത്ത് പറയാനുള്ള മ്യൂസിയംസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരത്തുള്ള നേപ്പിയർ മ്യൂസിയം വളരെ ഒരു നല്ല കണ്ണിന് അതിമനോഹരമായ കാഴ്ചയേകുന്നൊരു മ്യൂസിയം ആണ് അവിടെ നിന്നൊരുപാട് നമുക്ക് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും ആ മ്യൂസിയത്തിൽ പൊയി കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളത് ഇൻഡൊ പോർച്ചുഗീസ് മ്യൂസിയം അതും വളരെ നല്ല രീതിയിൽ അതായത് നമുക്ക് പണ്ട് നടന്ന കാര്യങ്ങളും ചരിത്രപരമായിട്ടുള്ള ബ്രിട്ടൺ കാര്യങ്ങളും ഒക്കെ നമുക്ക് പോർച്ചുഗീസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു മ്യൂസിയം ആണ് ഇൻഡൊ പോർച്ചുഗീസ് മ്യൂസിയം പിന്നെ ഹിൽ പാലസ് ആർക്കിയോളജിക്കൽ മ്യൂസിയം ഉണ്ട് തൃശ്ശൂർ അത് നല്ലതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ശ ഒരുപാട് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട് പഠിക്കാനുണ്ട് ഒരിക്കലും നമ്മൾ കണ്ട കാര്യങ്ങൾ മറന്ന് പോവില്ല അല്ലേ അപ്പം കണ്ട കണ്ണിലൂടെ കാണുന്ന കാര്യങ്ങളാണ് ഏറ്റവും വലിയ അനുഭവമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ശക്തൻ തമ്പുരാൻ പാലസ് അവിടെ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനുമുണ്ട് കുട്ടികളൊക്കെ കൂട്ടി പോയി കണ്ട് കഴിഞ്ഞാൽ വളരെ അവർക്ക് ഇങ്ങനെ തറച്ച് നിൽക്കും മൈൻറ്റിൽ ഓരോ കാര്യങ്ങൾ അവർ കണ്ട ഓരോ കാര്യങ്ങളും ഇങ്ങനെ മൈൻറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക ഇതിൻ്റെക്കെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എല്ലാം പത്ത് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് പൊതു അവധി അല്ലാത്ത ഒഴികെയുള്ള ദിവസങ്ങളിൽ എല്ലാം ഇത് പ്രവൃത്തി ഈ മ്യൂസിയം ഒക്കെ പ്രവൃത്തി ദിവസങ്ങളാണ് അതാണ് പറയാനുള്ളത് നല്ല നല്ല അനുഭവങ്ങൾ തരുന്ന ഒന്നാണ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ